വീടുകളിൽ കോഴി വളർത്തുന്നുണ്ടെങ്കിൽ അത് നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അസുഖം ഒന്നും വരാതെ സൂക്ഷിക്കണം പിന്നെ അവർക്ക് നമ്മളെ പഴകിയ പഴങ്കഞ്ഞികളോ അല്ല പിന്നെ നമുക്ക് വേണ്ടാത്ത കുറെ ഫുഡുകളൊന്നും കോഴിക്ക് കൊടുക്കരുത് കോഴിക്ക് ആവശ്യമായിട്ടുള്ള ചില ഫുഡ് ചില അവ അതിപ്പോൾ നമ്മൾ കടയിലായാലും അവൈലബിൾ ആയിരിക്കുമല്ലോ ചില ഫുഡ്കളൊക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കോഴിക്ക് കൊടുക്കാവുള്ളൂ പിന്നെ വാക്സിനേഷൻ എന്തേലും ഉണ്ടെങ്കിൽ കോഴിയെ അതിൽ നിന്ന് പ്രതിരോധിക്കുക കാരണം ഒന്നും വരാതെ ഇപ്പം എല്ലായിടത്തും പക്ഷി പനിയൊക്കെ ആയതുകൊണ്ട് അതിൽ നിന്നൊക്കെ തടയാൻ വേണ്ടി കോഴികൾക്കാവശ്യമായിട്ടുള്ള സംരക്ഷണം പിന്നെ അവരുടെ കൂടും കാര്യങ്ങളൊക്കെ എപ്പോഴും നീറ്റുമായിരിക്കണം കൂട് നിന്ന് വരുന്ന വേസ്റ്റുകളായാലും ബയോഗ്യാസ് ബയോഗ്യാ ബയോവേസ്റ്റു പോലെത്തോരുക്ക് കിണറൊക്കെ ഉണ്ടാക്കി അതിനകത്ത് നിക്ഷേപിക്കാൻ നോക്കണം അല്ലെങ്കിൽ നമ്മളതു മൂലം നമ്മൾ വീട്ടിൽ കോഴിയുടെ വളർത്തലിന് മൂലം നമുക്ക് മറ്റുള്ള ഒരു വീട്ടുകാർക്ക് നമ്മളുടെ അസുഖമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ കോഴികളെ വളർത്തുമ്പോൾ നമ്മുടെ നമ്മുടെ സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും നോക്കി നല്ലത് പോലെ വളർത്താൻ ശ്രദ്ധിക്കുക